ഹലോ ഞാ കൊടുപ്പനയിൽ കൊടുപ്പനയിൽ നിന്നാണ് വിളിക്കുന്നതു ഞാൻ നിങ്ങളുടെയൊരു ക്യാബ് ഓട്ടോ ബുക്ക് ചെയ്തിരുന്നു അതു രണ്ടു മണിക്കെത്തുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇതുവരെയത് എത്തിയിട്ടില്ല അപ്പതിൻ്റെ കാരണം എന്താണെന്നറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഓക്കേ അപ്പം നിങ്ങൾ ആലപ്പുഴ ചങ്ങനാശ്ശേരി കയറി തിരുവല്ല എടത്ത്വാ വഴി കൊടപ്പനയിലെത്താനാണല്ലേ നോക്കുന്നത് പക്ഷെ എനിക്കു തോന്നുന്നത് അതിനേക്കാളും നല്ലതു നിങ്ങളും ചങ്ങനാശ്ശേരിയിൽ നിന്നു രണ്ടായി എ സി റോഡ് കയറി രാമൻ രാമങ്കിരി വേഴപ്ര വഴി കൊടപ്പനയിലോട്ടു വരികയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ എത്താൻ സാധിക്കും എന്നാണ് എനിക്ക് എൻറ്റൊരഭിപ്രായത്തിലെന്താണെന്ന് വെച്ചാൽ എടത്ത്വ തിരുവല്ല എടത്ത്വാ വഴിക്കു തായങ്കരി വഴി കയറി വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ടു താമസിക്കും മാത്രമല്ല ബ്ലോക്കിനും കാരണമാകും അപ്പം ട്രാഫിക്കുണ്ടാകും അപ്പം ചങ്ങനാശ്ശേരിയിൽ നിന്നു ഡയറക്റ്റ് എ സി റോഡ് കയറി നിങ്ങൾ വേഴപ്ര വഴിയെത്തുമ്പോൾ നിങ് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കുന്നതാണ്